എൻ്റെ ജീവിതത്തിൽ വിശ്വാസം എനിക്ക് ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കളിൽന്ന് എനിക്ക് പൈതൃകമായി ലഭിച്ചതാണ് ഞങ്ങളുടെ ഇതിനകത്ത് അന്ധവിശ്വാസത്തെക്കുറിച്ചോ അടിച്ചേൽപ്പിക്കുന്നതിനെക്കുറിച്ചോ ഇതുവരെയും സംസാരിക്കുന്നതും ഒന്നും കേട്ടിട്ടില്ല പിന്നെ മനുഷ്യർക്ക് മനസിലാക്കാൻ പറ്റാത്തത് ദൈവം ഉന്നതത്തിൽ നിന്നും മനസിലാക്കി കൊടുത്താലേ അവനു ഏതൊരു മതത്തിലും വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നു മനസിലാവുകയുള്ളു ചുമ്മാപോയി ഒരു മതത്തിൽ പോയി നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒന്നും കിട്ടത്തില്ല ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്നുപറയും പരിശുദ്ധാത്മാവ് ഉന്നതത്തിൽനിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസിലാക്കുക നിങ്ങൾക്കെല്ലാം മനസ്സിലാകും എന്നാണ് ഞങ്ങളെ ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ട് എവിടെപ്പോയാലും ഒരു മതത്തേയും അന്ധവിശ്വാസത്തോടെ കാണാൻ എനിക്ക് താല്പര്യമില്ല എന്നാ എന്നു പറഞ്ഞാൽ എൻ്റെ മതം എനിക്ക് ഏറ്റവും നല്ലതാണെന്നു തോന്നുന്നു അതുപോലെ ആയിരിക്കും മറ്റേതിനെയും ഞാൻ ക്രിസ്തുവിനെ പറയുന്നത് പോലെ എല്ലാവരെയും എല്ലാ മതങ്ങളും ഒരുപോലെ സ്നേഹിക്കുക ഒരുപോലെ വിശ്വസിക്കുക എനിക്ക് അങ്ങനെയൊരു കാഴ്ചപ്പാടുള്ളതാ അന്ധവിശ്വസത്തെക്കുറിച്ചു ജനങ്ങളോടു നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ അത് അവർ നെഗറ്റിവ് പിടിച്ചു നെഗറ്റീവ് ആയിട്ടുപോകും നമ്മൾ പോസിറ്റീവ് ആണു സംസാരിക്കുന്നതെങ്കിൽ ജനങ്ങളും പോസിറ്റീവ് ആയി നല്ലകാര്യങ്ങൾ മാത്രം ചെയ്തു അവരു പോകും ഒരു കൊച്ചു കുഞ്ഞിലെ മുതൽ ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ വാർത്തു എടുത്തു അവനെ വലുതാക്കുന്നത് അവൻ അതുപോലെയായിരിക്കും അവൻ്റെ ജീവിത സാഹചര്യം പോകുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് നീ അതുചെയ്യണം ഇതുചെയ്യണം നമ്മളു മാത്രമേയുള്ളു ബാക്കിയുള്ളതെല്ലാം വെറും പാഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞു മനസിലാക്കി കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതവും വേസ്റ്റ് ആകും അവൻ കാണുന്നവരൊക്കെ അവനവൻ്റെ മതമാണ് നല്ലെതെന്ന് അവൻ പഠിക്കും ഇതങ്ങനെ നമ്മളെല്ലാം സഹോദരീസഹോദരങ്ങളാണ് എല്ലാ മനുഷ്യരെയും അവരവരുടെ മതങ്ങളേയും അവരെ നമ്മളെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കണമെന്ന് അവനു മനസിലാക്കി കൊടുത്താൽ ആ ഒരു ജനതയെ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യരെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകുകയില്ല അല്ലാതെ നെഗറ്റീവുമാത്രം എൻറ്റതുമാത്രം നല്ലത് ബാക്കിയുള്ളവരെല്ലാം ചീത്തയാണെന്നും പറഞ്ഞു നമ്മൾ കുറേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വാർത്തെടുത്താൽ അവരു നോക്കുന്ന അല്ലേൽ ആ ജനങ്ങൾ മൊത്തം മറ്റുള്ള മതങ്ങളെയും അല്ലെങ്കിൽ മറ്റു മനുഷ്യരെയും ചീത്തയായിട്ട് മാത്രമേ അവരു കാണുകയുള്ളൂ അങ്ങനെയല്ല നമ്മൾ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ എങ്ങനെയാണോ അവർക്കു നല്ല കാര്യങ്ങൾ കുറഞ്ഞു പറഞ്ഞു മനസിലാക്കി കൊടുക്കുന്നത് ഒരുവിശ്വാസം ജനിക്കുമ്പോൾ നമ്മുടെ മതമാണ് നല്ലത് ബാക്കിയുള്ളതെല്ലാം ചീത്തയാ അങ്ങനെയല്ല എല്ലാ മതങ്ങൾക്കും അതിൻറ്റേതായാപ്രത്യേകതകളുണ്ട് അതിൻറ്റേതായാ ജീവിതസാധ്യതകൾകൊണ്ടു അവരതിൽ ജീവിക്കും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കുക അന്ധവിശ്വസത്തിൽ പോകുന്നവരെ നമുക്കൊരിക്കലും ഉയർത്താൻ പറ്റുകേല എന്നു പറഞ്ഞാൽ മനുഷ്യർക്ക് മനുഷ്യരുടെ സ്വഭാവങ്ങൾ പലതാണ് ഒരു വീട്ടിലെ സ്വഭാവം ആയിരിക്കില്ല അടുത്ത വീട്ടിലെ അപ്പം ഒരു മതത്തിൻ്റെ സ്വഭാവമായിരിക്കില്ല അടുത്ത മതത്തിൻറ്റേത് അടുത്ത മതത്തിൻറ്റേത് അപ്പം പല പല വിശ്വാസങ്ങളിൽ വളരുന്നവരെ നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ കാണുന്നു അതുപോലെ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് കാണാൻപറ്റും മറ്റുളവർ എങ്ങനെ കാണുന്നു ഓരോ മനുഷ്യൻ്റെ മനോഭാവമാണ് അന്ധവിശ്വാസവും വിശ്വാസവും അവനെ വിശ്വാസത്തിലാണ് ആദ്യമേ വളത്തുന്നത് നല്ല വിശ്വാസത്തിലാണവളെ വളർത്തുന്നതെങ്കിൽ ആ വിശ്വവാസത്തിൽ തന്നെ അവൻ ജീവിക്കും നല്ല വിശ്വാസത്തിൽ അല്ല വളർത്തുന്നതെങ്കിൽ അവൻ അന്ധവിശ്വാസത്തിൽ ജീവിക്കും അവനെ നമ്മളും എത്ര എടുത്താലും മാറ്റാൻ പറ്റുകേല അവൻ ആ വിശ്വാസത്തിൽ തന്നെ പോകും